ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എനിക്കുണ്ടായ അവിസ്മരണീയ ഒരു മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമുക്ക് മഴക്കാലമാണ് മഴക്കാലത്തുണ്ടായതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര നാശനഷ്ടവും കാര്യങ്ങളൊക്കെയുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇവിടെയൊക്കെ മുങ്ങിപോകും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു നമുക്കൊന്നും എവിടെയും പോകാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ആയിട്ടാണ് മാറിയിട്ടുണ്ടായിരുന്നത് അതിനിടയ്ക്ക് ഒരു കോവിഡ് വന്നതു കൊണ്ട് നമുക്ക് എവിടെയും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഒരു മരം വീണാൽ പോലും നമുക്കതൊന്നു വെട്ടി മാറ്റാനോ ഒരു കാര്യങ്ങൾക്കും നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു കാരണമെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ മേളിലേക്ക് വീണ് കഴിഞ്ഞാലും ആരും വരാത്ത ഒരവസ്ഥ ആ ഒരു ടൈമിലൊക്കെ ഭയങ്കരമായിട്ടും കോവിഡ് മുൾമുനയിൽ നിൽക്കുന്ന ഓരോ കാലാവസ്ഥകളും കാര്യങ്ങളൊക്കെയായിരുന്നു അതിനിടയ്ക്ക് ഈ പ്രകൃതിയുടെ ഒരു കോപവും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ മേളിലേക്കൊരു മരം വീണാൽ പോലും വെട്ടാൻ പറ്റാ വരാത്ത ഒരു ആൾക്കാരൊക്കെ ആൾക്കാരുടെ ഒരു ഇതായിരുന്നു ആ ടൈമിൽ പിന്നെ നമുക്കിപ്പോൾ വീടിൻ്റെ മണ്ടേലേയ്ക്ക് വീണില്ലെങ്കിലും നമ്മളിപ്പോൾ റോഡ് സൈഡിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റിന് മേളിലേക്ക് വീണാൽ പോലും നമുക്കതൊന്നു പോയിട്ട് വെട്ടി മാറ്റാനോ അവരെയൊന്ന് സഹായിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ഇതാണ് എനിക്ക് മെയിനായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ